ഹലോ ഹലോ അത് ജിം എനിക്ക് തടി കുറക്കണായിരുന്നു ഇപ്പം ഞാൻ തൊണ്ണൂറ്റഞ്ച് കിലോ ഉണ്ട്

രണ്ട് വർഷം രണ്ട് വർഷം

ഞാന് ഒരു രണ്ട് ലിറ്റ്റ് ഇല്ലല്ലല്ല

മധുരമോ

ഓ അപ്പോൾ ഇതെങ്ങനെയാണ് വെറും വയറ്റിലാണോ ചെയ്യേണ്ടത് അതോ ഫുഡ്ഡ് കഴിച്ചിട്ടാണോ വർക്കൗട്ട് ചെയ്യേണ്ടത്

അപ്പോൾ ഈ രാത്രിക്കേത്ത ഫുഡ്ഡക്കെ എങ്ങനെയാണ്

ആ ആ പിന്നെ പിന്നെ അമ്മളീ വെള്ളം കുടിക്കുമ്പോൾ ഈ അങ്ങനെ കുപ്പിക്ക് ലിറ്ററ് വെക്കാതെയാ ഗ്ലാസാ

ഓക്കെ ഓക്കെ